നമസ്കാരം ഞാൻ കുറച്ച് ആ അതെ വസ്തു വില്ക്കുന്ന ബ്രോക്കറാണ് കോട്ടയമാണോ ആ തരാമല്ലോ ഒരുപാട് പ്ലോട്ടുകളുണ്ട് ഹൗസ് പ്ലോട്ടുകളുണ്ട് അത് ബിൽഡിങ്ങോടുകൂടിയുള്ള കെട്ടിടത്തോടുകൂടിയുള്ള സ്ഥലമാണോ വേണ്ടത് അതോ സ്ഥലം മാത്രം മതിയോ കെട്ടിട്ടിരിക്കുന്ന രീതിയിലുള്ളതോ ഓ ഉണ്ട് അങ്ങനത്തെ പ്രോപ്പര്ട്ടീസ് ഉണ്ട് എത്ര സെൻറ്റ് സ്ഥലമാണ് വേണ്ടത് ഓ ഓ ഓ ഓ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിനുള്ള പ്ലോട്ടുണ്ട് കേട്ടോ ആ ആ അത് കോട്ടയം പരിസരത്ത് തന്നെ വേണം അല്ലേ ആ ശരി ശരി ശരി

ആ അങ്ങനെയെങ്കില് കോട്ടയം സി എം എസ് കോളേജിന്റെ പുറകുവശത്ത് കിടപ്പുണ്ട് കേട്ടോ

ആ ലോറിയൊക്കെ ചെല്ലുന്ന സ്ഥലമാണ് ഏതാണ്ട് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് അൻപത് മീറ്റർ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലം മാത്രമേയുള്ളൂ അമ്പത് മീറ്റർ ആ നല്ല ലോറി പോകുന്ന വീതിയുള്ള വെള്ളമൊക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണ് നമുക്കറിയാമല്ലോ എല്ലാവിധ കോട്ടയം ടൗണാകുമ്പോള് എല്ലാവിധ സൗകര്യങ്ങളുമുള്ളതാണ് ആ ഓ ശരി ശരി ശരി ആ അപ്പോള് അതിനോട് അടുത്തുതന്നെ വേണമായിരിക്കുമല്ലേ ഏകദേശം അടുത്തുതന്നെ വേണമായിരിക്കുമല്ലോ ആ ശരി ശരി അങ്ങനെയെങ്കില് ഈ പറഞ്ഞ സ്ഥലത്തിന് ഈ അമ്പത് സെൻറ് പ്ലോട്ടിന് ഒരു സെൻറ്റിന് ഏതാണ്ട് പത്ത് ലക്ഷം രൂപ വില വരുന്നുണ്ട് പ്രശ്നമല്ല അല്ലേ ആ എങ്കിൽ നല്ല നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ആര്ക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കോട്ടയത്ത് ഞാൻ പറഞ്ഞ സി എം എസ് കോളേജിൻ്റെ പുറകുവശത്തെ സ്ഥലം പിന്നെ നിങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാനുള്ള സൗകര്യവും ഏതാണ്ട് കുമരകം റോഡിലേക്ക് തിരിയുന്നിടത്തുണ്ട് അതും വളരെ അടുത്തുതന്നെയാണ് ഉം നിങ്ങള് സമയം പോലെ ഓ ശരി ശരി അപ്പോള് തീർച്ചയായിട്ടും നിങ്ങള്ക്കിത് വാങ്ങാവുന്നതാണ് നിങ്ങളുടെ സമയം പോലെ എത്തുക നിങ്ങൾ നേരിട്ട് സ്ഥലം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങള്ക്കത് ഇഷ്ടമാകുകയുള്ളൂ തിങ്കളാഴ്ച പോരൂ തിങ്കളാഴ്ച രാവിലെയാണെങ്കില് സൗകര്യമായിരുന്നു രാവിലെ ഒന്പത് മണിക്കാണെങ്കില് സൗകര്യമായിരുന്നു

പ്രോഗ്രാമുണ്ട് അല്ലേ ഫോണ് വന്ന് കോള് വേറെ കയറിവരുന്നുണ്ട് ആ അപ്പം എന്തായാലും തിങ്കളാഴ്ച രാവിലെ സൗകര്യമാണ് കേട്ടോ തിങ്കളായ്ച സൗകര്യമാണ് അപ്പോള് എന്നെ വിളിച്ചിട്ട് വന്നാല് മതി കേട്ടോ